ഹലോ ആ സാറേ ഞാനിവിടെ കുന്നംങ്കിരീല് നിന്നൊരാളാണ് വിളിക്കുന്നത് ആ ഞാ ഞാൻ വിളിച്ചത് ഞാനിപ്പോൾ ഇവിടോട്ട് വ നാട്ടിലോട്ട് വന്നിട്ട് കുറച്ചായി അപ്പം എനിക്ക് മാ നമ്മുടെ ആധാറുവായിട്ട് ബന്ധിപ്പിക്കാൻ ഇപ്പം എല്ലാ ആധാറുവായിട്ട് ബന്ധിപ്പിക്കണമല്ലോ നമ്മുടെ ഡോക്യുമെന്സൊക്കെ അപ്പം അതേതൊക്കെയാണെന്ന് അറിയാനായിട്ടാണ് ഞാന് വിളിച്ചത് നമ്മളെ ഇവിടുള്ള അടുത്തൊള്ളോരോടൊക്കെ ചോദിക്കുമ്പോൾ ഓരോരുത്തർ ഓരോന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ഗവണ്മ ഓഫീസിലോട്ടന്നെ വിളിക്കുവാണ് കറക്റ്റായിട്ട് അറിയാല്ലോ അതിന് വേണ്ടിയ ഞാന് വിളിച്ചത് എത് ഏതൊക്കെയാണ് നമ്മുടെ ആധാറുവായിട്ട് ബന്ധിപ്പിക്കേണ്ടതെന്ന് ഒന്ന് പറയാവോ

ആ ഓക്കെ ആ എനിക്ക് വോട്ടർ ഐ ഡി ഉണ്ട് അപ്പം അതോ ആ ഹ ഹ ഇപ്പം പാസ് നമുക്കാ അക്കൗ ബാങ്ക് അക്കൗണ്ടെ ഒന്ന് രണ്ട് മൂന്ന് എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഇതുവായിട്ട് ബന്ധിപ്പിച്ച് ബ ലിങ്ക് ചെയ്യണോ ഓ ശരി ആ ആ ഹാ ഹാ ഇപ് ആണല്ലേ ആ ആ ആ അപ്പം നമക്കിപ്പം ന ഓള്റെഡി എന്തോ ഇനി ഓരോ ഇത് ഓരോന്നും ലിങ്ക് ചെയ്യാനായിട്ട് ഓ പ്പയ പല പല ഡോക്യുമെന്സായിരിക്കും വേണ്ടതല്ലേ ആ എല്ലാത്തിൻറ്റെം ഫോട്ടോയും കാര്യങ്ങളും ആ ആ അല്ല ഞാന് ചോദിച്ചത് ഇപ്പം ഇപ്പം പാസ് ബുക്കുവായിട്ട് ചെല്ലുമ്പം പാസ് ബുക്കിനെ ബന്ധിപ്പിക്കണത് പാസ് ബുക്കുവായിട്ട് മാത്രം ചെന്നാൽ മതിയോ അതൊ വേറെന്തേലും ഡോക്യുമെന്സ് വേണോ വേണ്ട അത് മതി ഫോട്ടോ വേണോന്ന് തോന്നുന്നില്ലേ ഫോട്ടോയോ ആ ആ ഹാ ഹാ നമുക്ക് പിന്നെ ഇപ്പം നമ്മളൊരു ഫോൺ നമ്പറ് റിജ് വെച്ചാണ് ലിങ്ക് ചെയ്യുന്നതെങ്കിൽ അടുത്ത പിന്നെ നമുക്കത് മാറ്റണോങ്കിൽ മാറ്റാല്ലോ അല്ലേ അതിനീ അക്ഷയായി തന്നെ ചെന്നാൽ മതിയോ ആ ആ അതാപ്പം ഞാന് ചോദിച്ചത് നമുക്ക് തന്നെ ഫൊ നമുക്കീ ലിങ്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് ഫോണിക്കൂടെ ചെയ്യാന് പറ്റോ അതോ അക്ഷയയിൽ തന്നെ ചെയ്യണമെന്നുണ്ടോ

ആഹാല്ലെ ഓക്കെ ഓക്കെ ആ ആ അപ്പം അക്ഷയായിൽ ചെന്നാൽ മതിയല്ലേ ആ ആ ശെരി സാറെ ഓക്കെ ഞാൻ അപ്പം അതറിയാന് വേണ്ടീട്ട് വിളിച്ചതായിരുന്നു താങ്ക് യൂ കേട്ടോ ഓക്കെ